ഞങ്ങളുടെ പ്രദേശത്ത് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയമുണ്ട് എല്ലാ തരത്തിലുള്ള കായിക മത്സരങ്ങളും ഈ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ചു നടത്താറുണ്ട് അതു മാത്രമല്ലാണ്ട് മുൻസിപ്പൽ പബ്ലിക് സ്റ്റേഡിയമുണ്ട് മാർത്തോമാ കോളേജ് ഗ്രൗണ്ടുണ്ട് മാർത്തോമാ കോളേജ് ഗ്രൗണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോൾ മെയിനായിട്ട് അവിടെയാണ് ഇപ്പോൾ കായികം നടത്തുന്നത് അതുമാത്രമല്ലാണ്ട് ക്രിക്കറ്റൊക്കെ കുട്ടികളൊക്കെ വന്ന് മാർത്തോമാ കോളേജിൽ വന്ന് വൈകുന്നേരമൊക്കെ ക്രി ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് അതൊരു വലിയ ഗ്രൗണ്ടാണ് പിന്നെ മാർത്തോമാ സ്കൂൾ ഗ്രൗണ്ടുണ്ട് അവിടെ അത്യാവശ്യം കുട്ടികളെല്ലാവരും ഈ ഇതു വെച്ചിട്ട് ഒരുപാട് അവിടെ ഒരുപാട് മത്സരങ്ങളും വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട് പിന്നെ എസ് സി സെമിനാരി സ്കൂൾ ഗ്രൗണ്ടുണ്ട് അതു മെയിനായിട്ട് ക്രിക്കറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ക്രിക്കറ്റ് കളിയൊക്കെ നടത്തുന്നത് ടൂർണമെൻ്റ് വലിയൊരു ഗ്രൗണ്ടാണ് അത് അതുകൊണ്ട് തന്നെ രഞ്ജി ട്രോഫി മത്സരത്തിൽ പങ്കെടുത്ത പല കായിക താരങ്ങളും അവിടെ വന്ന് ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഇതൊരു വളരെ എന്താ പറയുക വളരെ ഫേയ്മസായിട്ടുള്ള ഒരു ഒരുപാട് ഒരുപാടുയർന്നു തലങ്ങളിലുള്ള ആൾക്കാർ വന്ന് കളിച്ച് മുന്നേറിയിട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് എസ് സി സെമിനാരി സ്കൂൾ ഗ്രൗണ്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഗ്രൗണ്ടാണ് ക്രിക്കറ്റ് സ്റ്റേഡിയവുമൊക്കെയായി ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെയായിട്ടാണ് എല്ലാവരുമതുപയോഗിക്കുന്നത് പിന്നെ തിരുവല്ലാ പബ്ലിക് സ്റ്റേഡിയത്തെക്കുറിച്ച് പറയാണെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ക്രിക് കായിക മത്സരങ്ങളും എവിടെയാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ചു നടത്താറുണ്ട് അതുകൊണ്ടു തന്നെയതൊരു വലിയ സ്റ്റേഡിയം തന്നെയാണ് നല്ല എന്താ പറയുക എല്ലാവർക്കും വന്നൊത്തൊരുങ്ങി ഒത്തുകൂടാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ് ഈ സ്ഥലമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക എല്ലാ എല്ലാ കാര്യത്തിലുള്ള സൗകര്യങ്ങളും ഈ സ്റ്റേഡിയത്തിനുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് നം തിരുവല്ലയിലെ കുറിച്ച് പറയാനാണേൽ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളുമെല്ലാം ഉള്ള ഒരു സ്റ്റേഡിയമാണ് സ്റ്റേഡിയങ്ങളാണ് ഇവയൊക്കെ പിന്നെ കുഞ്ഞി കുഞ്ഞി ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടി ഇതൊക്കെയാണ് അത്യാവശ്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഗ്രൗണ്ടുകളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ